ഹലോ ഫ്ലിപ്പ്കാർട്ട് അല്ലേ ഞാനേ ഒരു ഇത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ സംഭവം എനിക്കത് കിട്ടിയിട്ടില്ല ആ അതെ അതെ എൻ്റെ ഇത് നമ്പർ അടിച്ച് നോക്കിയാൽ മതി ആ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ല അതെങ്ങനെയാണ് ശരിയാവുക ഞാൻ എനിക്ക് കിട്ടാത്ത സാധനം ഡെലിവറി ആയിയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഇതില് മെസ്സേജൊക്കെ അയക്കുക ഇല്ല ഞാൻ ഒ ടി പി ആർക്കും ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജോ അതായത് രാവിലെ എനിക്ക് വെരുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നട്ടില്ല വൈകുന്നേരമായപ്പോൾ എന്നോട് ഇത് മെസ്സേജ് വന്ന് നിങ്ങൾക്കത് ഡെലിവറി ആയി ആപ്പോൾ താങ്ക് യു ഫോർ പർച്ചേസിങ്ങ് എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ ഇല്ല എനിക്ക് സാധനം കിട്ടാണ്ട് ഞാനെങ്ങനെയാണ് നിങ്ങൾക്കത് ഇതാക്കുക ഞാനത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുത്തത് അതായത് ഓൺലൈൻ പേയ്മെന്റാണ് കൊടുത്തത് ആ പേയ്മെൻറ് ചെയ്തതാണ് ഞാൻ ആ എനിക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പൈസ അടച്ചതല്ലേ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് വിളിക്കുമോ ഓക്കെ എന്നാൽ